നമ്മുടെ ഒരു ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിച്ചി ട്ടുണ്ട് പക്ഷേ ഓൺലൈൻ കൂട്ടായ്മ ആണെങ്കിൽ നമുക്ക് ഒരു സമയത്തന്നെ പല ഭാഗത്തിരുന്ന് നമുക്ക് ഒന്നിച്ചു ചേരുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങള് കൈമാറാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സാധിക്കും പക്ഷെ ഓൺലൈൻ അല്ലാതെ ഒരു സ്ഥലത്തു വന്നിരുന്ന് ഒരു കൂട്ടായ്മ നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എത്താൻ വരാതെ വരും നൂറു പേരുള്ളൊരു കൂട്ടായ്മയാണെങ്കിൽ ചിലപ്പോൾ പത്ത് പേരായിരിക്കും വരുന്നത് പക്ഷെ ഓൺലൈനാണെങ്കിൽ അമ്പതോ അറുപതോ പേർക്ക് ഒന്നിച്ചത് കൈകാര്യം ചെയ്യാൻ കഴിയും അങ്ങനെ പക്ഷെ നേരിൽ കാണുന്നത് മറ്റേ ഓൺലൈനിൽ കൂടെ കുറച്ച് കാണും മുഖങ്ങളൊക്കെയെന്നുണ്ടെങ്കിലും രണ്ടും ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഓൺലൈൻ കൂട്ടായ്മ കൂടുതൽ ദിവസങ്ങളിൽ നമുക്കു സംഘടിപ്പിക്കാൻ കഴിയും മറ്റേത് എല്ലാവരുടെയും സൗകര്യം നോക്കി ഒരാഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കില് മുറിയിടെ സൗകര്യം നോക്കി മറ്റുള്ള സൗകര്യം നോക്കി ഒക്കെ വേണം ചെയ്യാനായിട്ട് ഓൺലൈൻ കൂട്ടായ്മ അതൊന്നും വേണ്ട ഒരു സമയം നിശ്ചയിച്ച് കഴിഞ്ഞാല് അതിനകത്ത് കൊടുത്തുകഴിഞ്ഞാല് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം എന്റര് ചെയ്യാം നമുക്കു കാര്യങ്ങള് മുമ്പോട്ടു പോവാനും കഴിയും അത് ഒരർത്ഥത്തിൽ മറ്റ് കൂട്ടായ്മയെക്കാട്ടിലും വളരെ സൗകര്യപ്രദവും ഉപകാരപ്രദവും തന്നെയാണ് ഈ ഓൺലൈൻ കൂട്ടായ്മ